ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് അരികിലായി ഒരുപാട് പ്രകൃതിദത്ത പാർക്കുകളും വനങ്ങളും അതുപോലെ തന്നെ നദികളും ഒക്കെയുണ്ട് ഇവിടെയൊക്കെ ആണെങ്കിലും ഒരുപാട് ആളുകൾ വന്നു പോകാറും ഉണ്ട് അപ്പോൾ നദികൾ ആയിക്കോട്ടെ നദികളിലൊക്കെ ആണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പോയി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ വാഹനങ്ങൾ കഴുകാനൊക്കെ അവിടെ നിന്ന് ജലം ഉപയോഗിക്കാറുണ്ട് പിന്നെ തുണികൾ കഴുകാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് വെള്ളം നദികളിൽ നിന്ന് എടുക്കാറുണ്ട് അതുപോലെതന്നെ വനപ്രദേശങ്ങൾ ആയിക്കോട്ടെ ഇപ്പോൾ വിദേശസഞ്ചാരികൾ ഉൾപ്പെടെ മിക്കപ്പോഴും ആ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒരുപാട് ഫോട്ടോ എടുക്കാനും അതുപോലെതന്നെ ഫാമിലിയോടൊപ്പം സമയം ചി ലവഴിക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ എത്താറുണ്ട് ഈ വനങ്ങളിലൊക്കെയാണെങ്കിലും പിന്നീട് പറയുകയാണെങ്കിൽ പ്രകൃതിദത്ത പാർക്കുകൾ പാർക്കുകളിലൊക്കെ പോയിരിക്കുന്നത് തന്നെ ഒരു സമാധാനപരമായ അന്തരീക്ഷം നമുക്ക് നൽകുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്സ് ഉള്ള സമയത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കില് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിലാണെങ്കിലും അവിടെയൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു റിലാക്സേഷൻ കിട്ടാറുണ്ട് ഞാനൊക്കെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിഷമമോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ള സമയങ്ങളിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ചില സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ മലകൾ ആയിക്കോട്ടെ മലകളിലൊക്കെ കയറി ഇറങ്ങി നടക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും അവിടെയൊക്കെ പോകുമ്പോൾ ഒരുപാട് കടകളും അതുപോലെതന്നെ ഒരുപാട് ആളുകളും വന്നു പോകുന്നുണ്ട് വിനോദസഞ്ചാരികളൊക്കെ വന്നുപോകും അവരൊക്കെ പോയി ഫോട്ടോയെടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരുകൂട്ടം കുട്ടികൾ കാണും ഈ വിനോദ സഞ്ചാരികളുടെ അടുത്തുപോയി ഫോട്ടോയെടുക്കാനും അവരുടെ അടുത്ത് നിന്ന് പേനയൊക്കെ ചോദിക്കാനും അങ്ങനെ കുറെ കുസൃതി നിറഞ്ഞ കാര്യങ്ങൾ അവിടെയൊക്കെ നടക്കാറുണ്ട് പിന്നെ വനപ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് കാട്ടാന പോലുള്ള മൃഗങ്ങളെയൊക്കെയാണ് അവിടെ കാണാറുള്ളത് പിന്നെ നദികളിൽ ആയിക്കോട്ടെ മുതല അങ്ങനെ തുടങ്ങിയ പിന്നെ നദികളിലൊക്കെ പോകുമ്പോഴാണേലും വെള്ളത്തിൽ കാലിട്ടിരിക്കുമ്പോഴത്തേക്കും മീൻ വന്നിങ്ങനെ കൊത്തുമ്പോൾ ഇക്കിളി എടുക്കുന്നതും അതൊക്കെ ഭയങ്കര രസമാണ് ആ ഒരു സമയമൊക്കെ നല്ല എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു നല്ല അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടാറുണ്ട് നല്ലൊരു അന്തരീക്ഷം ആയിരിക്കും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള സമയങ്ങളിൽ പോയി ചിലവഴിക്കാൻ ഞാൻ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഇതേപോലുള്ള സ്ഥലങ്ങൾ ഇള്ളത് എനിക്ക് വളരെയധികം എന്താ സന്തോഷം തരുന്നുണ്ട് അതുപോലെതന്നെ ഏന്തെങ്കിലും ഒക്കെയിപ്പം വീട്ടിൽ വീട്ടിലൊക്കെ ആണെങ്കിലും അതിഥികളൊക്കെ വരുമ്പോഴാണേലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവരെക്കൊണ്ട് പോയി കാണിക്കുകയും അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അവിടെയൊക്കെ പോയിരിക്കാൻ ഇപ്പോൾ എൻ്റെ കസിൻസൊക്കെ വരുമ്പോഴാണേലും അവർ എപ്പോഴും വരുമ്പോൾ പറയും അവിടെ പോകണം അല്ലെങ്കിൽ നമുക്ക് മല കാണാൻ പോകാം പാർക്കിൽ പോകാം എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചൊക്കെ അവിടെ പോയിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് കളിക്കാറുണ്ട് പിന്നെ പാർക്കിൽ ഒക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടാറുണ്ട് അങ്ങനെ നിരന്തരം കണ്ടുമുട്ടി പരിചയപ്പെട്ട ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഞങ്ങളുടെ സ്ഥലത്ത് അല്ലെങ്കിൽ ആൾക്കാർക്ക് വളരെ പ്രയോജനകരമാകുന്ന കുറെ കാര്യങ്ങളാണ് ഇതുപോലെയുള്ള പ്രകൃതിയോട് ഇണങ്ങുന്ന സ്ഥലങ്ങൾ അതായത് ഈ നാദിക്കരയിലൊക്കെ പോയിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മലകളിൽ ഒക്കെ പോയി ഒന്നിച്ച് ഞങ്ങൾ സ്കൂളീന്നൊക്കെ ടൂറിന് പോകുമ്പോഴാണേലും ഇതുപോലെ മലകളിലൊക്കെ പോകുമ്പോഴാണേലും ആഹ് എന്തൊരു രസമായിരുന്നു നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ പോയിരുന്ന് ആസ്വദിക്കാൻ ഒന്നിച്ച് ഫോട്ടോ എടുക്കാനും ഒരുപാട് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഫാമിലി ആയിട്ടും ഞങ്ങൾ കുറെ തവണ പോയിട്ടുണ്ട് പാർക്കിലൊക്കെ ആണെങ്കിലും കുട്ടികളൊക്കെ ആയിട്ട് പോവാൻ നല്ല രസമാണ് അവരൊക്കെ അവിടെ പോയിട്ട് അവരുടെ കളിയൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് ആൾക്കാരൊക്കെ അവരെ ആ ടെൻഷൻ അല്ലെങ്കിൽ അവരുടെ ആ സ്ട്രസ്സ് ഫ്രീ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെ അവർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സമയം ചിലവഴിക്കുമ്പോൾ കിട്ടാറുണ്ട് ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ അടുത്തുള്ള പ്രകൃതിദത്തമായ അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യം ഉള്ള ഇതേപോലെയുള്ള സ്ഥലത്തെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളത്